ഗ്രാമങ്ങളിൽ നടുവേദന ശമപ്പിക്കാൻ ഏറ്റവും ഉപയോഗപ്രദമായി ഇപ്പം കാണുന്നത് ശരിക്കും നല്ല തൈലം ഉപയോഗിച്ച് നല്ല പച്ച പച്ച മരുന്നുകൾ കൊണ്ട് കാച്ചി എടുത്ത എണ്ണ ഉപയോഗിച്ചുള്ള തിരുമൽ ചികിത്സയാണ് പിന്നെ കിഴി കുത്ത് കിഴി കുത്ത് എന്ന് പറയുമ്പോൾ കിഴി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പച്ച പച്ച മരുന്നുകൾ ചേർത്ത് തുണിയിൽ കെട്ടി കിഴി ഉണ്ടാക്കി അത് ചൂടാക്കി നടുവേദന ഉള്ള ഭാഗങ്ങളിൽ ചൂട് കൊടുത്തു കൊണ്ട് അല്ലേ എങ്കിൽ കിഴി കുത്തിക്കൊണ്ട് ആ നടുവേദന ക്ഷമിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട് പ്രധാനപ്പെട്ടമായ മാർഗ്ഗങ്ങൾ ഗ്രാമങ്ങളിൽ കാണുന്ന അത് തന്നെയാണ്